അതേ അതേ അതേ അതേ ആ ഹാ എന്നാ മീന വേണ്ടത് ഇപ്പം നമുക്കുള്ളത് കരിമീനുണ്ട് ആ കരിമീനുണ്ട് തിലോപ്പിയ ഉണ്ട് ആ ഓ ഇല്ല നമുക്ക് കിഴക്കൻ മീനേ ഉള്ളു ആ ആ കരിമീൻ കിലോയ്ക്ക് നാന്നൂറ്റി തൊണ്ണൂറ് പച്ചയാണെങ്കിൽ അഞ്ഞൂറ്റി പത്ത്

അതേ അതേ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ആ അ എത്ര കിലോ വേണം ചേച്ചീ ഹോം ഡെലിവെറീ ഇന്ന് ആ പയ്യൻ ഇവിടെ ഇല്ല എന്നാലും കൊണ്ടുത്തരാം എത്ര കിലോ വേണമെന്ന് പറഞ്ഞാൽ അതിന് അനുസരിച്ച് കൊണ്ടു തരാം നാല് കിലോ ആ ഹാ ഹാ ഹാ കൊണ്ടു തരാമേ ആ ഡ്രസ്സ് ചെയ്യാം ഡ്രസ്സ് ചെയ്യാം ആ ഫ്രഷേ ഉള്ളു നമ്മുടെ ഇവിടെ ഫ്രെഷേ ഉള്ളു ഡേയ്ലി വരുന്നത് ആ അത് അത് ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിൻ മേടിടുക്കുന്നവരൊക്കെ രണ്ടാമത് ഇവിടെ വരും ആ ഇല്ല ഇല്ല ഇനി ഇത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നേ മേടിക്കത്തുള്ളു

ആ ഇത് നാല് എത്ര മണിക്കാണ് വരേണ്ടത് അവിടത്തേക്ക് എത്ര മണിക്ക് കൊണ്ടു വരണം ചേച്ചി ആ അഞ്ച് മണിയാകുമ്പം കൊണ്ടു വരാം അഞ്ച് മണിയാകുമ്പം കൊണ്ടു വരാം ലൊക്കേഷൻ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണേ ഞാൻ ആ പയ്യൻ്റയ്ൽ കൊടുത്തയക്കാം അപ്പം അ ഹാ ഹാ ഹാ പൈസാ പൈസ എങ്ങനെയാണ് പേയ്മെൻ്റ് അ ഈ നമ്പറിൽ അ പൈസാ പിന്നെ എന്താ പറയുക ആ പിന്നെ ഇത് ഞങ്ങൾ ഇങ്ങനെ ഈ ഇത് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു പരിവം കൂടെയുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ആ ആ ആ ആ ഹഹാ ആ ശരി എന്നാൽ ഉപയോഗിച്ചു നോക്കിയിട്ട് ആ ആ ആ ആ ആ ആ ഹാ ഹാ എന്തായാലും ഞങ്ങൾ ഈ മറ്റേ പാക്കിലാണ് കൊടുത്തു വിടുന്നത് ഈ ഐസ് പാക്കിലാണ് കൊടുത്ത് വിടുന്നത് അപ്പോൾ അത് ഒന്നുകിൽ കൈയ്യോടെ കറി വയ്ക്കണം അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലൊ വല്ലതും വച്ചേക്കണം ആ കാരണം ഇവിടെ നിന്ന് വെട്ടിയൊക്കെ അവിടം വരെ കൊണ്ടു വരുമ്പം അത് ചീത്തയായി പോകാതിരിക്കാനാണ് ഇങ്ങനെ കൊണ്ടു വരുന്നത് അപ്പം അത് അത് കൈകാര്യം ചെയ്യണെ എന്തായാലും ആ പയ്യൻ്റേൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം എനിക്ക് ലൊക്കേഷൻ അയച്ചു തരുമ്പഴേ അഞ്ച് മണിക്ക് മുമ്പായിട്ട് എത്താം ആ എത്താൻ പറയാം എത്താൻ പറയാം അവർ സമയത്ത് എത്തിക്കോളും വേറേ പ്രത്യേകിച്ചു ആ വേറെ എന്തെങ്കിലും മീൻ വേണമെന്നുണ്ടെങ്കിൽ വരുന്ന പയ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയേ ആ നമുക്ക് കിഴക്കൻ മീനുകളാണ് കൂടുതൽ വരാൽ ഒക്കെയുണ്ട് ആ ഇന്നിപ്പം ഇത് രണ്ടേ ഉള്ളു കേട്ടോ ശരി എന്നാൽ ആ ഓക്കെ അപ്പം അഞ്ച് മണിക്ക് എത്തിച്ചോളാം കേട്ടോ ശരി ഓക്കെ ആ ശരി